എൻ്റെ ഗ്രാമത്തിൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന ഒരു ജലസ്രോതസ്സ് എന്ന് പറയുന്നത് കിണറുകൾ തന്നെയാണ് അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ എടുത്ത് നോക്കാണങ്കിൽ വർഷം മുഴുവനും കിണറ്റിന്ന് തന്നെയാണ് നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നത് കൂടിപോയിട്ടുണ്ടെങ്കിൽ ഒരു ഏപ്രിൽ മെയ് ആ മാസങ്ങളിൽ മാത്രമാണ് നമ്മുടെ കിണറ്റിൽ കുറച്ച് വെള്ളം ഒന്ന് കുറഞ്ഞ് വരുന്നത് ആ സമയത്ത് നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ പൈപ്പ് ലൈൻ വഴിയുള്ള വെള്ളം അങ്ങനെയാണ് നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കാറ് ഇവിടെ മാക്സിമം എല്ലാ വീടുകളിലും തന്നെ കിണറുകളുണ്ട് എല്ലാവരും കിണറുകളെയാണ് കുടിവെള്ളത്തിനും അതുപോലെ തന്നെ മറ്റു ദൈന്യദിന പ്രവർത്തനങ്ങൾക്കും വേണ്ടി ആശ്രയിക്കുന്നത് ചുരുക്കം ചിലർ മാത്രമാണ് പൈപ്പ് ലൈനെ മുഴുവനായിട്ട് ആശ്രയിക്കുന്നത് അല്ലേ അല്ലാതെ എല്ലാവരും തന്നെ വീടുകളിൽ കിണറ് കുത്തി അതിൽനിന്നും വെള്ളം എടുത്തു ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാവരുടെയും കിണറിൽ തന്നെ വർഷം മുഴുവനും വെള്ളം കാണാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കുറച്ച് വെള്ളം കുറവ് കാണാറുള്ളത്